ഇവയെല്ലാം തന്നെ നമുക്ക് ചിത്രം വരയ്ക്കാനായിട്ട് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ഇതിൽ കൂടുതലായിട്ട് ചാര്ട്ട് പേപ്പർ ആണ് ഞാന് കൂടുതലായിട്ട് ചിത്രം വരയ്ക്കാനായിട്ട് ഇതിൽ കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് നമുക്ക് അതിൽ തന്നെ പലതരം പെയിൻറ് ഉപയോഗിക്കാം നമുക്ക് പോസ്റ്റർ ആയാലും അക്രിലിക്ക് ആയാലും ഏത് പെയിൻറ് ആയാലും നമുക്ക് അതിൽ ഉപയോഗിക്കാം വാട്ടര് കളർ ആയാലും എല്ലാത്തരം കളറുകളും നമുക്ക് അതിൽ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ ചാര്ട്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് നമുക്ക് വേസ്റ്റ് മെറ്റീരിയലിൽ നമുക്ക് അത് ഉപയോഗിച്ച് വേസ്റ്റ് മെറ്റീരിയൽ ഉപ ഉപയോഗിച്ചുകൊണ്ടു നമുക്ക് ചിത്രം വരയ്ക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചാ ചാര്ട്ട് ഉപയോഗിക്കാന് പറ്റും മ്മ ഒരു സൈഡ് ഉപയോഗിച്ച് ചാര്ട്ട് ആണെങ്കിലും അതിന്റെ മറ്റേ സൈഡ് ഉപയോഗിച്ച് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ പലതരം ചായങ്ങൾ ഉപയോഗിക്കാം നമുക്ക് ക ഏത് ചാര്ട്ടിൽ ഉപയോഗിച്ചാലാണോ കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് കളറുകൾ ഉപയോഗിച്ച് കളര് കോമ്പിനേഷന്സ് നോക്കി നമുക്ക് അതിൽ ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കും പലതരം ചിത്രങ്ങൾ നമുക്ക് അതിൽ വരയ്ക്കാം അപ്പോൾ ചാര്ട്ട് ആണെങ്കില് നമുക്ക് വണ് ടൈം യൂസ് മാത്രമല്ല മാത്രമല്ല അത് കൂടുതലായിട്ട് അവർ ഉപയോഗിക്കാം നമുക്ക് ഇപ്പോൾ ഏത് തരം ചിത്രങ്ങളായാലും ഭയങ്ക പെ പെന്സില് ഡ്രോയിങ്ങ് ആയാലും ജലച്ചായ ചിത്രങ്ങളായാലും അതുപോലെ എന്താണ് മറ്റ് പല രീതിയിലുള്ള നമുക്ക് ചിത്രങ്ങളും ചാര്ട്ടിൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ലോ ബഡ്ജറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ആയിട്ട് ഈ ചാര്ട്ട് ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ഈ ചാര്ട്ട് ഉപയോഗിക്കാറുള്ളത്